ഹലോ ആ ഹോള് സെയിലേജന്റല്ലേ ആ ആ അപ്പം നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് നമുക്കിത്തിരി ആ ഹാ അരിയൊക്കെ ഒരു ഒരു വെറൈറ്റീസേ ഉള്ളോ അതോ പലതുണ്ടോ പലതുണ്ടായിരിക്കും അല്ലേ ആ ആ ഹാ ഓള് മോസ്റ്റെല്ലാ അരി ഐറ്റമെല്ലാമുണ്ട് ആ ആ പിന്നെ നമ്മളീ പൊടികളുണ്ടല്ലോ ഇപ്പം അരിപ്പൊടി അങ്ങനുള്ള പായ്ക്കറ്റ് പൊടികളൊക്കെ ഉണ്ടോ ഉണ്ടുണ്ട് ആ ഹാ ഹാ അത്പോലെ തന്നെ നമ്മുടെ ഈ പയറ് വര്ഗങ്ങളൊക്കെ പായ്ക്കറ്റാക്കിയാണോ അതോ നിങ്ങൾ കൂടുതലായിട്ട് വിൽക്കുവാണോ

അങ്ങനേം ചെയ്ത് തരും ആ ആ ഹാ ആ അപ്പം നമുക്ക് ബണ്ടില് വേണം കുറെ സാധനങ്ങൾ വേണം അപ്പം ഞാൻ അതിന്റെ ആ സ്റ്റോക്കെല്ലാം കൂടെ ഞാനങ്ങോട്ടിട്ട് തരാം ഏ നമ്പരിലേക്ക് അങ്ങോട്ടിട്ട് തരാം ആ അപ്പം താമസമുണ്ടോ നിങ്ങൾക്ക് ഡെലിവറ് ചെയ്യാനായിട്ട് ചെയ്യും ഇപ്പം നമ്മളിപ്പഡ്വാന്സോ അങ്ങനെ വല്ലോം ചെയ്യണോ അതോ ഫുള് പേയ്മെൻറ്റാ അല്ലേ ആ ആ ആ അത് ശരി ആ ആ ആ സാധനം കിട്ടും സാധനം എഴുതുക ആ ഹാ ഹാ ഹാ ആ ഹാ കൊണ്ടു പോവുന്നു ആ ഹാ അപ്പം കുഴപ്പമില്ല അത് നല്ല സാധനമായിരിക്കണം വില നമുക്ക് വലിയ പ്രശ്നമില്ല ആ ഒന്നിച്ച് പിന്നെ ഒന്നിച്ച് ആ ലിസ്റ്റിടാം ലിസ്റ്റിടാ ലിസ്റ്റിട്ടേക്കാം കേട്ടോ ആ പിന്നെ മാക്സിമം നമുക്ക് ഇതൊക്കെ കിട്ടണം അത്രോക്കെ ഒന്നിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിന്റെതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കൂടെ കിട്ടണം ആ ആ ആ തരുന്നത് ആ സാധനം നല്ലതുമാണ് വിലയും കുറവുണ്ട് ആ ആ ആ ആ ആ അതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞോണ്ടാ ഞാനിപ്പം വിളിച്ചതേ ആ ഹാ ഹാ ഹാ ആ ഹാ ഹാ ആ അങ്ങനാവുമ്പോഴ്ത്തേക്ക് ഞാൻ അതിന്റെ ഡീറ്റേയ്ല്സിടാം എന്നിട്ട് അതനുസരിച്ചൊന്ന് മാനേജ് ചെയ്തേക്ക് ആ അതിന്റെ ഡീറ്റേയ്ല്സ് ഞാനിടാം ആ അതും ഇട്ടേര് ആ ഹാ ആ ഹാ ആ ഹാ ആ ഹാ ശരി ശരി ആ ഹാ ഹാ ആ ശരി ആ ആ ആ ലൊക്കേഷനൊക്കെ ഇട്ടേക്കാം ലൊക്കേഷനും ഇട്ടേക്കാം ലിസ്റ്റും ലൊക്കേഷനും കൂടെ ഇട്ടേക്കാം അപ്പം കുഴപ്പം ലൊക്കേഷനും ലിസ്റ്റ് വേണ്ട ലിസ്റ്റും കൂടെ അങ്ങോട്ടിടാം ആ ആ ആ എമൗണ്ട് പറ ആ ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ അപ്പം ശരി ശരി